ഹലോ ആ ഞാൻ ഒരു ടൂറിസ്റ്റായിരുന്നു അപ്പം ഞങ്ങളൊരു പത്ത് ദിവസത്തേക്ക് റൂമ് വേണമായിരുന്നു ഇരുപത് പേര് ആ കപ്പിൾസാണ് ആ പത്ത് റൂമ് മതിയാവില്ലേ ആ അതുപോലെ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടോ ആ ഏഹ് ആ ഓക്കെ പത്ത് ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും എന്നാൽ ബൈക്ക് നനയാത്ത സ്ഥലത്തല്ലേ പാർക്ക് ചെയ്യുക ഓക്കെ അവിടെ ഓഫ്റോഡിങ്ങൊക്കെ പോകാൻ വണ്ടികളുണ്ടോ ഓക്കെ പിന്നെ അതേപോല ഫുഡ് ഒക്കെയോ ആ ആ ഫുഡ് നിങ്ങൾ ചെയ്തോ എത്രയാണ് റേറ്റ് വരിക അതിന് അല്ല വെജും വേണം ആ ആ സദ്യേൻ്റ കൂടെ എന്തൊക്കെ ഉണ്ടാവും ആ ആ ആ ആ ഓക്കെ ഓക്കെ പായസം അങ്ങനത്തെ ഒന്നുമില്ലെടാ പായസം അങ്ങനത്തെ ഒന്നുമില്ലേ ആ സദ്യേൻ്റെ കൂടെ മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ അത് നല്ല കരിമീൻ ചുട്ടുകൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് നമ്മളെ ഓക്കെ അതേപോലെത്തന്നെ ഞങ്ങൾക്ക് റൂമിനൊക്കെ എത്രയാണ് റേറ്റ് വരുന്നതെന്ന് ഒന്ന് പറയുമോ ഓക്കെ ഓ ആ നമ്മുക്ക് ആഹ് സ്വിമ്മിംഗ് പൂളുള്ളതിന് എത്ര വരും എന്നാ അങ്ങനത്തെ ആ റൂമൊരു പത്തെണ്ണം കേട്ടോ ഡബിൾ കോട്ടേ പിന്നെ അതിൻ്റെ അകത്ത് ടി വി എ സി ഫ്രിഡ്ജ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണെങ്കിലൊക്കെ സൗകര്യം ഉണ്ടാകില്ലേ ഓക്കെ ഓക്കെ

ഓക്കെ ഈ നമ്പറിൽ വിളിക്കാം ഓക്കെ